സാറേ നമസ്കാരം ആ ഞാന് ഇപ്പോൾ ഈയിടെ ഗൾഫിൽ നിന്ന് വന്നതെ ഉള്ളു അപ്പോൾ ഒരു കുറച്ച് ഫണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് ഇപ്പോൾ നമ്മുടെ ലൈഫ് ഇൻഷുറൻസിൽ ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു

ഞാൻ ഇപ്പം വന്നിട്ട് പാലക്കാട് ആണ് ആ ഓക്കെ മന്ത്ലി സ്കീമ് എങ്ങനെ ആണ് എത്ര എമൗണ്ട് ഇ എം ഐ അങ്ങനെ ആണ് ഇ എം ഐ പോലെ ആണോ സ്കീമ് ആ ആ ഓക്കെ എൻഐ എൻആർഐ അക്കൗണ്ട് ആണ്

ആ ഓക്കെ സുനി ദാസ് അല്ലേ

ഓക്കെ ആ ആ ഞാന് ഇപ്പോൾ അതിന് മുകളിലേക്ക് ഏതാ പ്ലാൻ ഉള്ളെ അമ്പത് ലക്ഷത്തിൻ്റെ അല്ലാണ്ട് ഏതെങ്കിലും വേറെ പ്ലാൻ ഉണ്ടോ ആ വൺ സിആറിന് അപ്പം നമ്മൾ എത്രയാ അടക്കേണ്ടി വരിക എമൗണ്ട് ആ മിനിമം മാക്സിമം സെവെൻറ്റി ഫൈവ് ലാക്ക്സിന് ഒക്കെ തരില്ലേ ആ ആ ആ അപ്പോൾ ഞാൻ അതാ ചോദിക്കുന്നത് ഇപ്പം വൺ ക്രോറിൻ്റെ ഒര് ഇത് എടുക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പം അതില് ഇപ്പം നമ്മക്ക് നോക്കണ് പറയുമ്പം സെവെൻറ്റി ഫൈവ് തൗസൻഡ് വെച്ച് ഞാൻ അടയ്ക്കാ എത്ര എത്ര മാസം വെച്ച് അടയ്ക്കണന്ന് പറഞ്ഞ് തന്നാൽ മതി നമ്മക്ക് ഇപ്പം സ്റ്റാർട്ടിംഗ് ഇപ്പം ഒരു എന്താ പറയാ വൺ ടൈമായിട്ട് ഒരു ഫിഫ്റ്റി ലാക്ക്സ് അടച്ചിട്ട് ബാക്കി പിന്നെ അടയ്ക്കാം അങ്ങനെ എന്തങ്കിലും പറ്റുമോ ആ വൺ ടൈമിലാണ് ആ ടു ഒരു ടു ത്രീ ഇ എം ഐ ആയിട്ട് അടയ്ക്കാനേ ആ അത് അല്ല ഞങ്ങക്ക് ഇപ്പം അതായത് ഞാൻ വൺ ക്രോറിൻ്റെ എടുക്കാനാ ഉദ്ദേശിക്കുന്നേ അപ്പ അതില് ഒര് അമ്പത് ലക്ഷം ഇട്ട് നമ്മൾ ആദ്യം അടച്ചു ബാക്കി ഇരുപത് രൂപ ഒര് വർഷത്തിനുള്ളില് അടച്ചാൽ മതി അങ്ങനത്തെ ഒര് സ്കീമ് ഉണ്ടോന്നാണ് ചോദിച്ചത് ആ ആ ആ ഇവിടെ അപ്പം ഇന്ന് ബാങ്കില് ഒര് അക്കൗണ്ട് ഇട്ടാൽ ലിവിംഗ് ഫിനാൻസ് ഇട്ട് വെച്ചാൽ ഓട്ടോമാറ്റിക് ആയിട്ട് അത് ഡെബിറ്റ് പോക്കോളുവേലെ ആ ആ ആ എന്നാൽ പിന്നെ നമുക്ക് അങ്ങനെ പ്ലാൻ നോക്കാം അത് മാത്രം മറ്റേത് ആകുമ്പം നമ്മക്ക് മാറുമ്പം മാത്രം ആ ആ ഓക്കെ അപ്പോൾ ഞാൻ ഇപ്പോൾ ഇവിടുന്ന് വന്നാൽ എടുക്കാൻ പറ്റുമോ ഇപ്പോൾ ആ ആ ഓക്കെ ആ ആ ഓക്കെ നാലഞ്ച് കൊല്ലം വരുമ്പം എല്ലം നാല് കൊല്ലം ഉള്ളില് ഒര് രണ്ടോ മൂന്നോ ദിവസത്തിന് ഉള്ള് ഒന്ന് ചെയ്തു തരാൻ പറ്റുമോ കാരണം ഞാൻ എനിക്ക് തിരിച്ച് പോവണ്ടത് ആണ് അപ്പം അതിന് മുമ്പ് അത് ചെയ്ത് വെച്ചാൽ അവർക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഓക്കെ അപ്പം ഓക്കെ മ് ഓക്കെ ഓക്കെ എങ്കിൽ ശരി ഓക്കെ താങ്ക്യൂ